ഇത് വിഘ്നേഷ് റെസ്റ്റോറെൻ്റാണോ ഓക്കേ ഞാന് കുറച്ച് മുന്ന് അതായത് ഇന്നലെ ഞങ്ങള് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനയിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചതാട്ടോ നമ്മള് മന്തിയൊക്കെയാണ് ഓർഡർ ചെയ്തത് മന്തിയൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു എന്താന്ന് വെച്ചാൽ നല്ല അതായത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇത്രെയും നല്ലൊരു മന്തി ഞാനിതുവരെ കഴിച്ചിട്ടേ ഇല്ല അത്രെക്കും ടേസ്റ്റായിരുന്നു നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊറോട്ടയാണ് പൊറോട്ട പിന്നെ കുറച്ചൊരു അതായത് മയം കുറവ് പോലെ തോന്നി പിന്നെ പൊറോട്ടൻ്റെ കറിയൊക്കെ അതായത് മലബാർ ചിക്കൻ കറിയായിരുന്നു ഓർഡർ ചെയ്തേ അതൊക്കെ നല്ലതായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ പെട്ടത് അതായത് നമുക്ക് മന്തി റൈസൊക്കെ ഒരുപാടുണ്ടായിരുന്നു നമുക്ക് നല്ലവണ്ണം കഴിക്കാൻ നമുക്ക് നല്ലവണ്ണം വയറു നിറച്ച് കഴിക്കാനുള്ളതുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയൊക്കെ ക്വാണ്ടിറ്റിയോട് കൂടിയാണ് നിങ്ങള് തന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ടൈമെല്ലാം ഭയങ്കര കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നായിരുന്നു ഭയങ്കര താങ്ക്സ് ഉണ്ട് കെട്ടോ